ആ ഹലോ കൊച്ചേ എന്നാ കൊച്ചേ വിളിച്ചത് ആ ഹാ ഹാ ഹാ ഹാ ഹാ ആ അതുശരി ആ അതുശരി അയ്യോ എടാ ആ അവർ ഫോറിന് ഒക്കെ ആണല്ലോ കഴിക്കുന്നത് അല്ലേ

ഓ ആ ആ അതുശരി ആ ഇഷ്ടം പോലെ ഉണ്ട് എടാ നമുക്ക് ഏത് ഷോപ്പ് വേണമെങ്കിലും ഉണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ അടുത്ത് മാമ്പഴശ്ശേരിയില് അളകാപുരി എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ നമുക്ക് കള്ളും കിട്ടും കള്ള് അത്ര അത് അത്ര ഗുണം അല്ല അത് വരവ് കള്ളാണ് അവിടെ കിട്ടുന്നത് അത് കുടത്തിൽ അത് ഉണ്ട് ഇതിപ്പം നല്ല ഫുഡ് ആണ് ഒരുവിധം ഫുഡ് വലിയ കുഴപ്പമില്ല മാമ്പഴശ്ശേരി വലിയ തിരക്കിപ്പം ഇല്ല ആ മനസ്സിലായി മന മനസ്സിലായി അത് അപ്പം ഒരു കാര്യം ചെയ്യ് പിന്നേ വന്നിട്ട് നമ്മുടെ ആര് ബ്ലോക്കിന്റെ ചിറയില് ഉണ്ട് നമ്മുടെ അയൽവക്കത്തെ ആ സുനിൽ നിൽക്കുന്ന ആ കടയില് ആ ഷോപ്പിലുണ്ട് അതിന് കാ അതൊന്നും ആ അതെ കായലിന്റെ തീരത്തൊക്കെ ആണെങ്കിലും കള്ള് അത്ര അവിടുത്തെ അവിടെ ചെത്തൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും നല്ല കള്ളൊക്കെ അവർ കൊണ്ടുപോകും പിന്നെ അതിനകത്തും ഉണ്ട് എന്നാലും കൂട്ടത്തില് കുറച്ച് നല്ലത് കള്ള് അവിടെ കിട്ടും കാര്യം അവിടുത്തെ പിന്നെ കറി എല്ലാം ഉണ്ട് അതായത് ഞണ്ട് നമ്മുടെ കായലിലെ ഉല്പന്നങ്ങള് മൊത്തം കടൽ ഉല്പന്നങ്ങൾ കോഴി നാടന് കോഴി വാള എന്ന് വേണ്ട എല്ലാ ഐറ്റങ്ങളും കിട്ടും പിന്നെ വേറെയൊരു കാര്യമാണ് നിങ്ങളിപ്പം ഇവരിപ്പം വരുന്ന അമേരിക്കക്കാർ കൂടെ ആണെന്നറിഞ്ഞപ്പം റേറ്റിലൊന്നും കുറയില്ല നല്ല ഒരു എമൗണ്ട് ആകും അത് വിഷയം ഇല്ലെങ്കിൽ വിഷയമില്ല അത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് അതിനകത്തൊന്നും കുഴപ്പമില്ല പക്ഷേ പിന്നെ മറ്റേ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് നമുക്ക് പിന്നെ ഇവിടെ യാത്ര എല്ലാ എളുപ്പമുണ്ട് ഗരുഡാഗിരി എന്ന് പറഞ്ഞ് കിടങ്ങറ മുട്ടാർ നമ്മുടെ പള്ളിയിലോട്ട് പോകുന്ന വഴിക്കുണ്ട് ആ അവിടെ അവിടെയും നല് ആ അത് കൊള്ളാം പക്ഷേ നമുക്കേ യാത്രയ്ക്കൊരു ചെറിയ ഒരു ബോട്ട് കിട്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞാല് അവർ ജങ്കാറില് വേണം അക്കരെ പോവാന് അവിടുന്ന് കഴിഞ്ഞ് ഇത് നമ്മൾ ബോട്ടോ ആ എങ്കിൽ പിന്നെ വിഷയമില്ല അല്ലെങ്കിൽ അവർ ബോട്ടിൽ നമ്മളെ ഇക്കരെ എത്തിക്കും നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് അപ്പം അതിന് ആ അവരുടെ ഒരു ടൈം ഉണ്ട് ആ ടൈം ഒക്കെ അനുസരിച്ചേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട് അടുത്ത് വരെ പോവാനൊക്കത്തില്ല ഇക്കരെ വന്നേ കിടക്കുള്ളൂ നമ്മൾ ഈ കണ്ണാടിയിൽ വന്നേ നമ്മുടെ വാഹനം കിടക്കുള്ളൂ അവിടുന്ന് അവരുടെ വള്ളത്തിൽ വേണം പോവാന് എങ്ങനെ വേണമെങ്കിലും വേണ്ട വേണ്ട അതാവുമ്പം വിഷയമില്ല നമുക്ക് ഏത് സമയം അവിടെ ചെന്നാൽ മതി അത് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാല് ആ ബുക്ക് ചെയ്യാനായിട്ടിപ്പം നമ്മുടെ അയല്വക്കത്തുള്ള അവനോ സുനിലിനോട് പറഞ്ഞാൽ നമുക്ക് അത് ശരിയാവും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് മുന്നൂറ്റി അറുപത്തഞ്ചേ കാല് ദിവസവും നമ്മളെ പോലെ ഉള്ളവർ ഇഷ്ടം പോലെ ആള്ക്കാർ ഡെയിലി വരുന്നതാണ് അപ്പോൾ ഇത് ഭയങ്കര സെയിൽ ആണ് അത് രാത്രി താറാവ് കോഴി എല്ലാമുണ്ട് ഞണ്ട് കാരി എന്ന് വേണ്ട എല്ലാ ഒരു ഐറ്റങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒരു ഒരു ആ ഇത് ഇവിടെയും കിട്ടും ഇവിടെ സുലഭമായിട്ട് കിട്ടും അപ്പം ഓക്കെ ഇവിടെ

പക്ഷേ ഈ ഷോപ്പ് അങ്ങനെയല്ല മുന്നൂറ്റി അറുപത്തി അഞ്ചേകാല് ദിവസവും ഈ ഷോപ്പ് ഓള്റെഡി എല്ലാ വിഭവങ്ങളുമുണ്ട് ഒരെണ്ണത്തിനും ഒരു ഷോര്ട്ടേജ് ഇല്ല നമുക്ക് എന്ത് ആഹാരം വേണം ഏത് വേണം നമ്മൾ അവിടോട്ട് ചെന്ന് കഴിഞ്ഞാല് അപ്പോഴേ കിട്ടും പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ സാധാരണക്കാര്ക്ക് പറ്റുന്ന ഒരു ഷോപ്പ് അല്ല ഫുഡിനൊക്കെ നല്ല വിലയാണ് ആ എന്നാൽ പിന്നെ ഒരു വിഷയവും ഇല്ല നമുക്ക് ഏത് സമയം കൈകാര്യം ചെയ്യാം ആ ആ അവരുടെ കൂട്ടത്തിൽ എന്നെ കൂടെ കൂട്ടിയേക്കണം ഗെ ഗൈഡ് ആയിട്ട് ആ ആ ശരി ആ ശരി ഓക്കെ ഓക്കെ ഓക്കെ